ഹലോ ഹലോ ഞാൻ ഒരു കൊറോണ പോസിറ്റീവ് പേഷ്യൻ്റ് ആണ് പനവല്ലി

അ അ അതെയോ അ അ ഓക്കേ ഓക്കേ ഓക്കേ അ ഗുളിക ഒന്ന് പാരസിറ്റമോൾ ഉണ്ട് ഓക്കേ ഓക്കേ ഓക്കേ അ അ ശരി ഓക്കേ ഇല്ല ഇല്ല ഇല്ല ഇല്ല സമ്പർക്കം ഇപ്പോൾ വീട്ടുകാര് മാത്രമേ ഉള്ളൂ ഓക്കേ ഓക്കേ ശരി